ഹലോ ഹലോ ആ പറഞ്ഞോളൂ മാഡം മാഡം സ്ഥലം എവിടെയാണ് മാനന്തവാടി ആണ് അല്ലേ ഓക്കെ മാഡം അപ്പം എങ്ങനെ ആണ് ബഡ്ജറ്റ് എങ്ങനെയാണ് മാഡത്തിൻ്റെ ആ ഓക്കെ അപ്പം ഫസ്റ്റ് വൺ ലാക്കിൻ്റ അടുത്തുണ്ട് അപ്പം നമുക്കൊരു നൈൻറ്റി തൗസൻഡ് ഒക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഐ ട്വൻറ്റി ഒക്കെ എടുക്കാം മാഡം ഐ ട്വൻറ്റി ഇപ്പം എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് വണ്ടിക്ക് ഫുൾ പേയ്മെന്റ് വരുന്നത് ആ ഫോ അത് ഫോർ സീറ്റർ ആണ് ഐ ട്വൻറ്റി അപ്പോൾ നമ്മുടെ പ്രീമിയം ഇതിലാണ് അതിനിപ്പം നമുക്ക് പറയുമ്പോൾ ഇപ്പം എന്താണ് പറയുക അത്യാവശ്യം ലക്ഷ്വറി വെഹിക്കിൾ ആണ് അതിനിപ്പം എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് അതിന്റെ ലോ ഓപ്ഷൻ വണ്ടിക്ക് വരുന്നത് അപ്പം നമുക്ക് അതിന്റെ ഒരു നൈൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് നീട്ടാം ഒരു നൈൻറ്റി തൗസൻഡ് ഒരു ആ നൈൻറ്റി തൗസൻഡ് ഒക്കെ മാഡം പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് വണ്ടി വൺ മന്തിനുള്ളിൽ ഇറക്കാൻ പറ്റും ഡെലിവറി ചെയ്യാൻ പറ്റും വൺ മന്തിനുള്ളിൽ അതിപ്പം വൺ മന്ത് വരെ മാക്സിമം നമ്മൾ ചോദിക്കുന്നതാണ് അത് ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തുതരാം മാഡം ആ ഒരു ഫ ഫിക്സഡ് ഡേറ്റ് മാഡത്തിന് പറഞ്ഞുതരാം ആ ടൈമിൽ മാഡത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിടിച്ച് പോവും ആ കൂടുതൽ ഉള്ള സമയത്ത് കൂടുതൽ അടയ്ക്കാം മാഡം അത് പ്രശ്നം ഒന്നും ഇല്ല മാഡത്തിൻ്റെ കൈയ്യിൽ ഉള്ളതുപോലെ അങ്ങനെ അടയ്ക്കാം പക്ഷേ കുറവ് അടയ്ക്കാൻ പറ്റില്ല എപ്പോഴും കൂടുതൽ കൂടുതൽ ആണെങ്കിൽ കൂടുതൽ അടയ്ക്കാം ആ ഫിക്സഡ് അമൗണ്ടീന്ന് കൂട്ടാനാണെങ്കീ അടയ്ക്കാം അല്ലാണ്ട് കുറവ് അടയ്ക്കാൻ പറ്റില്ല ആ എങ്ങനെ ഐ ടെൻ നമുക്ക് ഒരു ആറ് പോയിന്റ് ഏഴ് ഒക്കെയാണ് വരിക സിക്സ് പോയിന്റ് സെവൻ ലാക്സ് ഒക്കെ വരും എയിറ്റ് പോയിന്റ് ടെൻ ആ ഇപ്പം പ്രീമിയം മോഡൽ നമ്മൾ പറ അത്യാവശ്യം എന്താണ് പറയുക ലക്ഷ്വറി വെഹിക്കിൾ ആണ് ഐ ട്വൻറ്റി ഒക്കെ വരുന്നത് അത് ആവുമ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡും ഉണ്ടാവും ഫാമിലിക്ക് അത്യാവശ്യം ഒരു ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നൊരു വെഹിക്കിൾ ആണത് ആ ആ ഒക്കെ വേണം ഓക്കെ ഓക്കെ അത് നമുക്ക് അറേഞ്ച് ചെയ്തുതരാൻ പറ്റും മാഡം എപ്പോഴത്തേക്കാണ് വരിക ആ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ മാഡം എന്നത്തേക്കാണ് ഷോറൂമിലേക്ക് എത്താൻ പറ്റുക ഇല്ല കുഴപ്പം ഇല്ല മാഡം സൺഡേ വന്നാൽ മതി ഓപ്പൺ ആണ് രണ്ട് സ്റ്റാഫ് കുറവായിരിക്കും എന്നാലും നമുക്ക് അറേഞ്ച് ചെയ്തുതരാൻ പറ്റും ചെയ്തുതരാൻ പറ്റും ആ ആ നൈൻറ്റി തൗസൻഡ് പേ ചെയ്താൽ മതി ആ ലോൺ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തുതരും ഓക്കെ മാഡം ഓക്കെ മാഡം വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണേ ഓക്കെ മാഡം താങ്ക് യൂ